ഇപ്പം മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മൺചട്ടി സ്റ്റീൽപ്പാത്രങ്ങൾ അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയാണ് മൺചട്ടിയെന്നു പറയുമ്പോൾ നമ്മുടെ മീൻകറി അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് പഴയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരിതാണ് മൺചട്ടിയെന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഓരോന്നിനെ അനുസരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റീൽപ്പാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളൊക്കെ ഉപയോഗിക്കും ഇപ്പോൾ പിന്നെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന കലങ്ങളാണ് ഇപ്പം നമുക്ക് കഞ്ഞി വയ്ക്കാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് കലം എന്നു പറയുന്നത്